പാചകം ചെയ്യാനായിട്ട് വളരെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ഞാനാണെങ്കിൽ പല പലതരത്തിൽ ഞാനാണെങ്കിൽ പല രീതിയിലല്ലെങ്കിൽ പല വെറൈറ്റീസ് ഓഫ് ഓരോ ഫുഡുകളും ഞാൻ ഉണ്ടാക്കാറുണ്ട് ഞാനാണെങ്കിൽ യുടൂബുകൾ അല്ലെങ്കിൽ മറ്റ് ഇതിലൂടെ ഞാനാണെങ്കിൽ കണ്ട് അല്ലെങ്കിൽ അത് കണ്ട് അതെങ്ങനെയാണ്ന്നുള്ളത് എല്ലാം അറിഞ്ഞ് ഞാൻ അത് പിന്നീട് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഞാനാണെങ്കിൽ ചെയ്തതിൽ എനിക്ക് ആണെങ്കിൽ പരാജയമായിട്ട് അല്ലെങ്കിൽ എനിക്കത് ചെയ്തിട്ട് വിജയിക്കാത്തതെന്ന് പറഞ്ഞാൽ ഉപ്പുമാവാണ് ഉപ്പുമാവാണെങ്കിൽ ഞാൻ പല തവണയും ഞാനുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതൊന്നും വിജയകരമായിട്ട് വന്നിട്ടില്ല ഞാൻ എന്തിരുന്നാലും ഞാനാണെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഞാൻ എടുത്താൽ പോലും ഞാൻ പലതവണ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും ഒന്നല്ലെങ്കിൽ റവ കൂടുതൽ അല്ലെങ്കിൽ വെള്ളം കുറവ് അല്ലെങ്കിൽ റവയ്ക്ക് അനുസരിച്ചുള്ള വെള്ളം എനിക്കാണെങ്കിൽ കറക്റ്റായിട്ട് അതിലേക്ക് ചേർക്കാൻ അല്ലെങ്കിൽ ചേർത്ത് കഴിഞ്ഞാലും ഒന്നുല്ലെങ്കിൽ റവ ശരിക്ക് വെന്തിട്ടുണ്ടാവില്ല ആ ഒരു രീതിയിലാണ് എനിക്ക് എപ്പോഴും കിട്ടുന്നത് ഞാനാണെങ്കിൽ പലതവണ അത് ഒരുതവണ ഞാനത് ശ്രമിച്ചു എനിക്കത് ശരിയായില്ല പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എനിക്കത് വീണ്ടും ശ്രമിക്കാൻ പറ്റാണെങ്കിൽ ഒരു വിജയകരത്തിൽ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും വീണ്ടും അത് ഞാൻ ട്രൈ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ പലതവണ ഞാൻ ചെയ്ത് നോക്കി ഞാൻ ആദ്യം ചെയ്ത സമയത്താണെങ്കിൽ എനിക്കതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെയാണെങ്കിൽ ഇട്ടപ്പോൾ കൂടി പോയി ആ ഒരു ടേസ്റ്റിന്റെ ഒരു ഇത് വന്നു പിന്നീട് ഞാൻ ചെയ്തപ്പൊഴാണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതലായിപ്പോയി വെള്ളം കൂടുതലായി അതുകൊണ്ട് ഒരു ആ ഒരു എന്തവോ ഒരു ടെക്സ്ചറിലേക്കത് മാറി പിന്നെ ഞാൻ ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് ശരിക്ക് വെന്തിട്ടുണ്ടായിരുന്നില്ല കാരണം വെള്ളം ഒഴിച്ച് കറക്റ്റ് ഒരളവിനൊള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു വെള്ളം അതിൽ ശരിക്കതു റവ വേകാത്ത ഒരു രീതിയിൽ കിട്ടി അതുകൊണ്ടെനിക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയില്ല എങ്കിലും ഞാനാണെങ്കിൽ വീണ്ടും അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാവാനായിട്ട്